ഹലോ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ അല്ലേ ഞാൻ എലിസബത്ത് ആയിരുന്നു എന്റെ ഒരു ഫോൺ മിസ്സ് ആയിരുന്നു അപ്പം അതിനേക്കുറിച്ച് അന്വേഷണത്തിന് വേണ്ടിയൊന്ന് വിളിച്ചതാണേ ഞാൻ കിടങ്ങറയിൽ നിന്ന് ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി ബസ്സിലായിരുന്നു ഞാൻ കയറിയത് നാള് അമ്പതിനാരുന്നു ബസ്സ് ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ കിടങ്ങറയിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എന്റെ ഫോൺ ഇതേപോലെ മിസ്സ് ആയെന്ന് അപ്പോഴത്തേക്ക് വെച്ച് മറന്നതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എൻറെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു ഞാൻ ബാഗിനകത്ത് വെച്ചതായിട്ടാണ് ഓർക്കുന്നത് പിന്നെ വണ്ടിയിൽ ഭയങ്കര തിരക്കായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് ഷട്ടർ ഒക്കെ അടഞ്ഞ് കിടക്കുന്നത് കൊണ്ടും ഭയങ്കര തിക്കും തിരക്കുമൊക്കെ ആയിരുന്നു ബസ്സ് ആ അതെ അപ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ശരിക്കും ഫോൺ വെച്ച് മറന്നതാണോ മിസ്സ് ആയതാണോ എന്ന് ബസ്സിൽ വെച്ച് എനിക്ക് അങ്ങനെ കോൾ ഒന്നും വന്നില്ലായിരുന്നു ഞാൻ അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തതായിട്ട് ഓർക്കുന്നൊന്നും ഇല്ല എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ആ ഓക്കെ സാർ ഞാൻ അതൊന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് നമ്പർ ഏതാണ് ഞാൻ ഒന്ന് നോക്കിയിട്ട് എളുപ്പമെന്ന് പറയാവേ ഞാനിപ്പം എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം ആ ഫ്രണ്ടിനോട് നമ്പർ ചോദിച്ചിട്ട് പറയാമേ സാറേ നമ്പർ പറയട്ടേ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് ടൂ ഡബിൾ നയൻ ടൂ ത്രീ ഇതാണ് ഇപ്പം നമ്പർ വാട്ട്സാപ്പും കോൾ ഐ ഡി ഒക്കെ കിടക്കുന്ന നമ്പർ ഇതാണ്

ആ ഞാൻ ആ ആല ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ വിളിച്ച് ചോദിച്ചിരുന്നു ബസ്സ് അ അവിടോട്ട് അല്ലേ ചെന്നത് അപ്പം അവർ ബസ്സിൽ ഇങ്ങനെ നോക്കിയിട്ടൊന്നും കണ്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലൊന്ന് പരാതിപ്പെടാനായിട്ട് അതാണ് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞത് മോഷണം തന്നെ ആവാനാണ് സാധ്യത

ആ ഓക്കെ സാർ ഓക്കെ സാർ താങ്ക് യു